ഞങ്ങളുടെ ഇവിടെ കാണുന്ന ഏറ്റവും പ്രധാനമായ ഒരു പ്രാണിയാണ് കടന്നല് ആ കടന്നല് നമ്മുടെ ഈ ചെടിച്ചട്ടിയിലൊക്കെ ഇങ്ങനെ നമ്മള് തൂങ്ങി കിടക്കുമ്പോള് ഇങ്ങനെ അതിൽ വന്ന് കൂട് വെക്കും കൂട് വെക്കുമ്പോൾ നമ്മള് ചെടി ഒരുക്കാൻ ചെല്ലുമ്പോൾ ആ കടന്നല് കുത്തും കടന്നല് കുത്തുമ്പോൾ അതി ഭയങ്കര കഴപ്പാണ് കഴപ്പ് കയറി നമ്മള് ചെയ്യുന്ന ഒരു നാട്ടുവൈദ്യമാണ് നമ്മൾ ഉള്ളി മുറിച്ച് അതേൽ നന്നായിട്ട് തേക്കും ഉള്ളി മുറിച്ച് തേക്കും പിന്നെ വെളിച്ചെണ്ണ തേക്കും പിന്നെ അതുപോലെ തന്നെ കടന്നല് ആയതു നമ്മുടെ തേനീച്ച തേനീച്ച കുത്തിയാലും ഇതുപോലെ തന്നെ നമ്മള് ഉള്ളി തൂക്കുകയും എണ്ണ തൂക്കുകയും ഒക്കെ ചെയ്യും പിന്നെ പിന്നെ കുത്തുന്നതാണ് പിന്നെ പിന്നെ കടിക്കുന്നതാണ് നമ്മുടെ പഴുതാര ആ പഴുതാര കടിച്ചാല് നമ്മളെ പിന്നെ പഴുതാര കടിച്ച ഇടത്ത് നമ്മള് മഞ്ഞളും വെളിച്ചെണ്ണയും കൂടെ നമ്മള് തേച്ചാലേ നല്ലൊരു കുറവ് കിട്ടും പിന്നെ പിന്നെ ഉള്ളതാണ് നമ്മുടെ

എട്ടുകാലി എട്ടുകാലി കടിച്ചാല് എട്ടുകാലി പറയുമ്പോൾ അത് അതി ഭയങ്കര വിഷമാണ് അത് നമ്മള് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ അന്നേരം അപ്പം അറിയത്തില്ല കടിക്കുമ്പോഴുത്തേക്കും അറിയത്തില്ല രണ്ടുദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ ആ എട്ടുകാലി കടിച്ച ഇടം അങ്ങ് ചൊറിഞ്ഞു ചൊറിഞ്ഞു തടിച്ച ആ ചൊറിച്ചിൽ ആവും പിന്നെ അതേ വെള്ളവും ഇതു ഒക്കെ വരും അപ്പോൾ നമ്മള് അത് ചെയ്യ് അത് പച്ച മഞ്ഞളും നമ്മുടെ ആര്യവേപ്പിലയും കൂടി അരച്ച് നമ്മള് അതേൽ തേക്കും അപ്പോൾ ആ വിഷം മാറി കിട്ടും പിന്നെ പാമ്പ് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല ആശുപത്രിയിൽ പോകാനേ ഒക്കത്തുള്ളൂ പിന്നെ